ഇന്ന് എൻ്റെ അടുക്കളയിലുണ്ടായിരിക്കുന്ന ചില ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ് ഗ്യാസ് സിലിണ്ടർ സ്റ്റവ് അതുപോലെ മിക്സ്ർ ഗ്രൈൻ്റർ ഓവൻ ഇതൊക്കെ എൻ്റെ അടുക്കളയിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ് അത് ഇന്ന് ഉണ്ടായതുകൊണ്ടുതന്നെ വളരെ മെച്ചമാണ് പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നാൽ പണ്ടു കാലത്ത് നമ്മുടെയൊക്കെ മുത്തശ്ശി മുത്തശ്ശന്മാരുടെ കാലത്തൊക്കെ ഈ മിക്സ്ർ ഗ്രൈന്റർ ഗ്യാസ് സിലിണ്ടർ ഓവൻ പോലെയുള്ള വീട്ടുപകരണങ്ങളൊന്നും ലഭ്യമല്ല പകരം അവരെ അരകല്ല് അമ്മിക്കല്ല് പോലെയുള്ള സാധനങ്ങളുപയോഗിച്ചായിരുന്നു ഭക്ഷണം പാചകം ചെയ്തിരുന്നത് അതുപോലെ അടുപ്പ് വിറകൊക്കെ കൂട്ടി തീ കായിച്ചായിരുന്നു അവരെ ഇന്നത്തെ ഗ്യാസ് സ്റ്റൗ സിലിണ്ടറിനു പകരം ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് എന്നാലതിന് വളരെയധികം കഠിനാധ്വാനം ഉൾപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് വിറക് വിറകെല്ലാം കൂട്ടുക തീ കത്തിക്കുക അതിൻ്റെ പുക ശ്വസിക്കുക ഇനി അരകല്ലിലും അമ്മിക്കല്ലിലൊക്കെയാണെങ്കിൽ അരയ്ക്കുന്നതൊക്കെ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു എന്നാൽ അതിൻ്റെ ആ ഭക്ഷണം പാചകം ചെയ്തിരുന്നത് അത് വളരേയധികം രുചികരമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ മിക്സർ ഗ്രൈൻ്റർ ഗ്യാസ് സിലിണ്ടർ ഓവൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതൊക്കെ ഭക്ഷണം പെട്ടെന്ന് ഭക്ഷണം പെട്ടെന്ന് നമുക്ക് പാചകം ചെയ്യാൻ പറ്റും പക്ഷേ നമുക്കത് നമുക്കത് എളുപ്പത്തിൽ ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുമെങ്കിലും അതിനു നല്ല രുചി നമുക്ക് ലഭിക്കുന്നില്ല കാരണം ഇന്നത്തെ നൂതനമായിട്ടുള്ള വീട്ടുപകരണങ്ങൾകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇനി പണ്ടു കാലത്ത് വീട്ടുപകരണങ്ങളിൽ പ്രത്യേകിച്ച് ഈ അടുപ്പ് പോലെയൊക്കെയുള്ള അരകല്ല് അടുപ്പ് അമ്മിക്കല്ലിലൊക്കെ പാചകം ചെയ്യുന്നതിന് ഗുണവും ഉണ്ടായിരുന്നു രുചി മാത്രമല്ല അതിനൊക്കെ ചില ഗുണങ്ങളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ സ്റ്റവ് ഗ്യാസ് സിലിണ്ടർ മിക്സർ ഗ്രൈൻ്റർ പോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ രുചി മാത്രം അല്ല കുറയുന്നത് ഗുണവും കുറയുന്നുണ്ട് എന്നാൽ പുരാതനകാലത്ത് നമ്മൾ ഈ വീട്ടുപകരണങ്ങളുപയോഗിച്ച് ഇതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് നല്ല രീതിയിലുള്ള വ്യായാമം കിട്ടുന്നുണ്ട് രുചിയും കിട്ടുന്നുണ്ട് അതോടൊപ്പം നല്ല ഗുണവും കിട്ടുന്നുണ്ട് അതുകൊണ്ടുതന്നെ പുരാതന കാലത്തുണ്ടായിരുന്ന ഒരു കാലം പ്രത്യേകിച്ച് അടപ്പിലൊക്കെ നല്ല ചട്ടിയിലൊക്കെ വച്ചിട്ടുള്ള മീൻ കറികൾ അതൊക്കെ നല്ല ടേസ്റ്റ് രുചി കിട്ടുന്നതായിരുന്നു എന്നാൽ ഇന്നത്തെക്കാലത്ത് എല്ലാം പെട്ടെന്ന് നടക്കാൻ വേണ്ടി ആളുകൾ പെട്ടെന്ന് ജോലിയ്ക്കൊക്കെ പോകുന്നതുകൊണ്ടുതന്നെ ഇന്നത്തെക്കാലത്ത് രാവിലെ ജോലിയ്ക്ക് പോകാൻ പ്രത്യേകിച്ച് സ്ത്രീകളെല്ലാം ഇന്നു ജോലി ചെയ്യുന്നവരാണ് അപ്പം അതുകൊണ്ടുതന്നെ അവർക്ക് രാവിലെ അടുപ്പത്ത് ഇങ്ങനെ വിറക് കൂട്ടാനോ അല്ലെങ്കിൽ അരകല്ല് ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കാനൊന്നും സമയം കിട്ടുന്നില്ല അതുകൊണ്ടുതന്നെ അവരെന്തു ചെയ്യുന്നു പെട്ടെന്നുതന്നെ മിക്സറിൽ പെട്ടെന്നരയ്ക്കുകയും അതുപോലെ ഗ്യാസ് സിലിണ്ടറിൽ പാചകം ചെയ്യുകയും അതുപോലെ ഓവനിലൂടെ പെട്ടെന്നു തലേ ദിവസത്തെ ഭക്ഷണമായിരിക്കും അവർ ഓവനിലൂടെ ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ തലേ ദിവസത്തെ ഭക്ഷണമൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നത് കൂടിയിരിക്കുന്നു അതുപോലെ ഫ്രിഡ്ജിൻ്റെ ഉപയോഗമാണെങ്കിലും അതെ തലേ ദിവസത്തെ ഭക്ഷണമൊക്കെ ഇങ്ങനെ വീട്ടിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വച്ച് പിറ്റേദിവസം രാവിലെ എണീറ്റിട്ട് ഓവനിൽ ചൂടാക്കുമ്പോൾ അതിൽ പലതരം കീടാണുക്കളുടെയൊക്കെ അംശം കൂടിയിട്ട് നമുക്ക് പലതരം വയർ വയറിനൊക്കെ പലതരം അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ പുരാതനകാലത്ത് അങ്ങനെയല്ല പണ്ടത്തെക്കാലത്ത് നമ്മുടെ മുത്തശ്ശി മുത്തശ്ശന്മാരൊക്കെ നല്ല അടുപ്പിൽ ഭക്ഷണമുണ്ടാക്കുകയും നല്ല ടേസ്റ്റും നല്ല രുചിയൊക്കെ തരും പ്രത്യേകിച്ച് അതുപോലെ നല്ല അമ്മിക്കല്ലിൽ അരച്ച ചമ്മന്തി അതൊക്കെ നല്ല വായിൽ നല്ല വെള്ളം ഊറൂന്ന ഒരു സമയമാണ് അതുകൊണ്ടുതന്നെ നമ്മുടെ ആ ഭക്ഷണ ക്രമീകരണം പണ്ടത്തെ കാലത്താണെങ്കിൽ നമുക്ക് നല്ല വ്യായാമവും കിട്ടും നല്ല രുചിയും കൂടും അതുപോലെ നല്ല ഗുണവും കൂടും അതായത് ഇന്നത്തെക്കാലത്ത് ഇത്തരത്തിലുള്ള ഈ പുതിയ ഇലക്ട്രോണിക്ക് ഉപകരണങ്ങൾ വന്നതിലൂടെ നമുക്ക് പലതരം ജീവിത രോഗങ്ങൾകൂടി കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് കൊളസ്ട്രോൾ ഷുഗർ പോലെയൊക്കെയുള്ള രോഗങ്ങൾ നമുക്ക് വ്യായാമം കുറഞ്ഞതുകൊണ്ടുതന്നെ പെട്ടെന്നുതന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ മിക്സർ ഗ്രൈൻ്റർ ഗ്യാസ് സിലിണ്ടർ ഓവൻ പോലെയുള്ള ഇലക്ട്രിക്ക് ഉപകരണങ്ങളിലൂടെ നമുക്ക് ഇന്നത്തെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അമിതമായി വ്യായാമം ചെയ്യേണ്ടി അല്ലെങ്കിൽ പണിയെടുക്കേണ്ടി വരുന്നില്ല ഭക്ഷണങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ അവരുടെ വ്യായാമ ചിട്ട നശിച്ചു പോയിരിക്കുന്നു അതുകൊണ്ടുതന്നെ അവർക്ക് പലതരം രോഗങ്ങളിൽ കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ പോലെയൊക്കെയുള്ള രോഗങ്ങൾ കൂടിക്കൂടി വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ പണ്ടത്തെക്കാലത്താണെങ്കിൽ സ്ത്രീകൾക്ക് നല്ല നല്ല വ്യായാമമുണ്ടായിരുന്നു അപ്പം നല്ല രുചിയും ഭക്ഷണ ശൈലിയൊക്കെ പണ്ടത്തേതായിരുന്നു പണ്ടത്തെ ഇലക്ട്രിക്ക് ഉപകരണങ്ങളുപയോഗിച്ചായിരുന്നു സാധിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ വീട്ടുപകരണങ്ങളും കുഴപ്പമില്ല പക്ഷേ നമുക്ക് വേറെ പല പ്രശ്നങ്ങളും ആ പുതിയ കണ്ടുപിടുത്തത്തിലൂടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് മിക്സർ ഗ്രൈൻ്റർ ഗ്യാസ് സിലിണ്ടർ ഓവൻ പോലെയൊക്കെയുള്ള ഇലക്ട്രിക്ക് ഉപകരണങ്ങൾ നമ്മുടെ ജീവിതശൈലി മാറ്റപ്പെടുത്തുന്നുണ്ട് നമുക്ക് ജോലിയ്ക്ക് പോകാനും പെട്ടെന്ന് എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കാനൊക്കെ അത് ഉപകരിക്കുന്നുണ്ട് എന്നാലും പണ്ടത്തെക്കാലത്ത് ഈ അടുപ്പിൽ കൂട്ടിയിട്ടുള്ള ഭക്ഷണവും അതുപോലെ അരകല്ലില് അരച്ച ചമ്മന്തിയുമൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രുചിയും അതുപോലെ ഗുണവും അതുപോലെ വ്യായാമവുമൊക്കെ കിട്ടുന്നുണ്ട് കൂടാതെ നമ്മുടെ ആരോഗ്യമത് സംരക്ഷിക്കുന്നുണ്ട്